ആ ചേട്ടാ ഞാൻ ഇവിടെ എന്നും കഴിക്കാൻ വരുന്ന ആളാണ് ചേട്ടനറിയാമല്ലോ എനിക്കിപ്പം ഇന്നും ഞാനെന്നും ഓർഡറ് ചെയ്യുന്ന ഫുഡെല്ലാം മതി

ആ ചിക്കൻ ബിരിയാണി ചില്ലി ചിക്കൻ ആ എല്ലാം എടുത്തോട്ടോ ആ ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഫുഡ് അതാണെന്ന് നിങ്ങൾക്ക് അറിയാല്ലോ അപ്പോൾ അത് തന്നെ എടുത്താൽ മതി ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും അത് തന്നെ മതി അപ്പോൾ ചേട്ടാ ഞാൻ എന്നും ഓർഡറ് ചെയ്യുന്ന അതേപോലെ തന്നെ എടുത്തോ ആ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും എടുക്കുവാണെങ്കിൽ എടുത്തോ പക്ഷെ ഇനി ഞാൻ എന്നും കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെ മതി അത് ചേട്ടനറിയാല്ലോ ഞാൻ എന്ന് ഇവിടെ വന്നാച്ചാ ഇങ്ങനത്തെ ആ ഫുഡ്കള് മാത്രേ കഴിക്കാറൊള്ളൂ അതാണെനിക്ക് ഇവിടുത്തെ ഫേവറേറ്റായിട്ട് സ്പെഷ്യൽ ആയിട്ട് തോന്നിയേ അപ്പം അത് തന്നെ എടുത്താൽ മതി ആ ആയിക്കോട്ടെ ശരി ചേട്ടാ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ റെഡിയായാലും മതി കുഴപ്പം ഒന്നുമില്ല വെയ്റ്റ് ചെയ്യാം ആ ചിക്കൻ ബിരിയാണി പിന്നെ ഉണ്ട് ചില്ലി ചിക്കൻ പിന്നെ ഓംലെറ്റ് അങ്ങനെ ഉള്ളതെല്ലാം ആ അതെ അങ്ങനെ എടുത്താൽ മതി